ആ സാറേ പറഞ്ഞോ എന്തായിരുന്നു വിളിച്ചത് ആ ഓക്കേ അത് കിട്ടുന്നത് തലയാറിൻ്റെ പൗഡറും നല്ല പൗഡർ ആണ് സാർ ഏത് ഏതു പ്രോഡക്റ്റാണ് ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് ഗ്രീൻ ടി ആണോ അതോ നോർമൽ പൗഡർ ആണോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ നമുക്ക് ഇപ്പം നെലവിൽ ആ ഇടുക്കിയിലെ മൂന്നാറിലാണ് ഉള്ളത് മൂന്നാറിൽ തലയാറാണ് നല്ല ടീ പൗഡറ് കിട്ടുന്നത് ബാക്കി എല്ലാ കമ്പനിയുടെയും ടീ പൗഡർ നമുക്ക് ഇവിടെ നിന്ന് പൊടികളെല്ലാം ഓപ്ഷനോവും എറണാകുളത്തിന് അവിടെ നിന്ന് ഓപ്ഷനു പോയിട്ട് റിട്ടേൺ വന്നിട്ടാണ് ഫാക്ടറികളിൽ പാക്ക് ചെയ്തു കൊടുക്കുന്നത് അത് നമുക്ക് ഇപ്പോൾ തലയാറിൽ മാത്രമാണ് നേരിട്ട് ഡയറക്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് ഉള്ളത് സാറെ അവരുടെ സ്വന്തം ഫാക്ടറിയാണ് അവർക്ക് പ്ലാൻ്റേഷൻ ഉണ്ട് അവരുടെ പൗഡർ നമുക്ക് അവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് മാത്രം മേടിക്കാം വേറെ എവിടെയും കിട്ടത്തും ഇല്ല ആ ബൾക്ക് ബൾക്കായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ എല്ലാം പറ്റും അല്ല അല്ല ഓർഗാനിക് ആയിട്ട് ആ ഫെർട്ടിലൈസ് സാധാ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അതിനകത്ത് പൗഡർ ഓർഗാനിക് അല്ല കാരണം ടീ പൗഡറുകളിൽ നമുക്ക് മരുന്നടിച്ചാലെ ക്ലൈമറ്റിന് അനുസരിച്ച് അതിൻ്റെ ഇലകളും കാര്യങ്ങളുമൊക്കെ കിട്ടത്തുള്ളൂ അല്ല അല്ല നമ്മൾക്ക് ഫെർട്ടിലൈസസ് ഓർഗാനിക് ആയിരിക്കില്ല വരുന്നത് പിന്നെ വരുന്നത് ഓർഗാനിക് യൂസ് ചെയ്യുന്ന സ്ഥലമുണ്ട് കുണുക്കുമല എന്ന് പറഞ്ഞിട്ട് കുണുക്കുമല ടി പ്ലാൻ്റേഷൻ അവിടെ ആണെങ്കിൽ ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന സ്ഥലം ആയത്കൊണ്ട് അവർ ഇവിടെ വേറെ കെമിക്കൽസ് ഒന്നും അടിക്കില്ല പെസ്റ്റിസൈഡ് ഇല്ലാത്തത്കൊണ്ട് അല്ല പെറ്റ്സും ഈ നമുക്ക് ഈ കീടാണുക്കളും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ മരുന്ന് അടിക്കുന്ന കാര്യം വരില്ല അതു കുണുക്കുമല എന്ന് പറയും അത് സൂര്യനെല്ലിയിൽ നിന്ന് കുറച്ചു കൂടെ കയറിപ്പോയാൽ കുണുക്കുമല എന്ന് പറയുന്ന സ്ഥലത്താണ് പറയുന്നത് വരുന്നത് ഓർഗാനിക് അവിടെ നിന്ന് എടുക്കാം പക്ഷേ അവരുടെ ഔട്ട്ലെറ്റ് വരുന്നത് അവർക്ക് അവിടെ നിന്ന് ഔട്ട്ലെറ്റ് ഉണ്ട് പക്ഷേ അവർ ബൾക്കായിട്ട് അവരുടെ പാക്കിങ്ങിലെ നമുക്ക് തരുള്ളൂ പുറത്ത് ലൂസ് ആയിട്ട് അങ്ങനെ തരാൻ ചാൻസ് ഇല്ല ആ ഓക്കേ അങ്ങനെ ആ ഓക്കേ ഓക്കേ അങ്ങനെ നമുക്ക് അവിറ്റെ നിന്ന് മേടിക്കാൻ പറ്റും നമ്മൾ അത് പക്ഷേ അത് കു ഴപ്പം എന്താണെന്ന് വച്ചാൽ നമ്മൾ അവിടെ ഫാക്ടറിയിൽ ചെന്ന് മേടിക്കണം അവരുടെ ഔട്ട്ലെറ്റ് ഫാക്ടറിയുടെ ആണ് ഫാക്ടറി അതായത് സൂര്യനെല്ലി നിന്ന് കുണുക്കുമല പോന്ന വഴിക്കാണ് കുണുക്കുമല എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് പോലെയാണ് അവിടെ നിന്ന് ആ ഇരുപത് ഇരുപത് കിലോമീറ്റർ അടുത്തുണ്ട് അത് നമുക്ക് ജീപ്പിനെ പോവാൻ പറ്റുള്ളൂ നമ്മൾക്ക് അവിടെ എത്തിക്കാനായിട്ട് നമുക്ക് ഉടക്ക് വരുന്നത് ജീപ്പിന് തന്നെ എട്ടുപേരുടെ നാലുപേരുടെ ജീപ്പിന് രണ്ടായിരം രൂപ മുടക്ക് വരും അപ്പോൾ നമ്മൾ ആ പൈസ മുടക്കി വേണം അവിടെ കയറി ചെല്ലാനായിട്ട് ആ ട്രിപ്പായിട്ട് പോകേണ്ടി വരും ഇല്ലേ ഇത് മേടിക്കാൻ പോകുന്നത് നഷ്ടം ആ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല ആ അങ്ങനെയാണെങ്കി കുഴപ്പമില്ല അങ്ങനെ നമുക്ക് നേരിട്ട് ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് അവിടെ നിന്ന് ചെന്നിട്ട് അവിടെ നിന്ന് ജീപ്പ് വിളിച്ചിട്ട് അവിടെ നിന്ന് നേരിട്ട് പോയിട്ട് മേടിക്കാവുന്നതാണ് മാനേജറെ പരിചയമുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തു തന്നേക്കാം സാറിന് ആ ഓക്കേ അപ്പോൾ അത് വരുന്നതിനു മുന്നേ എങ്ങനെ ആ സൂര്യനെല്ലി നമുക്കൊരു രാവിലെ പോരുവാണെങ്കിൽ സൺറൈസ് കാണാൻ പറ്റും ഒരു വെളുപ്പിന് മൂന്നു മണിക്ക് പോന്നു കഴിഞ്ഞാൽ സൺറൈസും കണ്ട് അവരുടെ ഫാക്ടറി നിന്ന് അതും മേടിച്ച് നമുക്കൊരു ടെൻ ഓ ക്ലോക്ക് ആവുമ്പോൾ തിരിച്ച് സൂര്യനെല്ലി വരാൻ പറ്റും കുണുക്കുമലയിൽ ചെന്നിട്ട് ആ ഓക്കേ ശരി എന്നാൽ വിളിച്ചാൽ മതി